ഹലോ ഹലോ സലാല മൊബൈൽസ് അല്ലേ ആ എനിക്ക് പുതിയൊരു ഫോണ് വാങ്ങാൻ വേണ്ടീട്ടായിരുന്നു

ഞാൻ കോഴിക്കോട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ചായിരം ആ റേഞ്ചിൽ വരുന്ന ഫോണ് വേണമായിരുന്നു

എനിക്ക് കുറച്ചുകൂടെ താൽപ്പര്യം സാംസങ് ആണ് അപ്പം സാംസങ്ങിൻ്റെ ഫോണ് നല്ലതൊക്കെ ഉണ്ടാകുവോ ആ ഒരു റേഞ്ചിൽ വരുന്ന ഫോണ് ആ ആണല്ലേ ഈ എം ഐ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടോ

ഉണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ കുറച്ചു പ്രൈസ് കൂടിയാലും കുഴപ്പമില്ല ഈ എം ഐ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ല ആ വേണ്ടാല്ലേ ഓക്കെ ആ ആ തരില്ലാല്ലേ ഓക്കെ ഓക്കെ ഉണ്ടല്ലേ സാംസങ്ങിൻ്റെ ഫോണിന് മാത്രം ആ ഓക്കെ ഓക്കെ ഇത് ഈ നമ്മൾ ആ കുറെ കേട്ടിട്ടുണ്ട് ഈ സാംസങ് ഭയങ്കര ഹാങ്ങും കാര്യങ്ങളൊക്കെയുണ്ടെന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നങ്ങൾ ആ ആണല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഷോപ്പ് ഓപ്പണാണോ ആ ഇന്ന് ഷോപ്പ് ഓപ്പണാണോ വന്നോളൂല്ലേ ഇപ്പോൾ ഈ എം ഐ ആണെന്നെങ്കിൽ നമ്മളെന്താ കൊണ്ടു വരേണ്ടത് മതിയല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മൂന്നു മണിയാകുമ്പഴ്ത്തേക്ക് വരാം എന്നാൽ ഓക്കെ ആ ഓക്കെ സർ